വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ടുണ്ട് ഞാനല്ല എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു റിലേറ്റീവ് എടുത്തിട്ടുണ്ട് ആ കുട്ടിക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അവര് മൂന്നു വർഷത്തെ കോഴ്സാണ് അപ്പോൾ മൂന്ന് ലക്ഷം രൂപ വേണ്ടി വരുന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി എടുത്തതാണ് എജൂക്കേഷൻ ലോണായതു കൊണ്ട് പെട്ടെന്ന് തന്നെ കിട്ടി

അത് എന്ന് പറഞ്ഞാ നമ്മൾ ജോലി കിട്ടിയിട്ട് ഞങ്ങളുടെ സാലറിയിൽനിന്ന് ഞമ്മൾ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത് ലോൺ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലോൺ ആണ് കാരണം ഞങ്ങളുടെ ഈ പഠിത്തത്തിനോട് അത് ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞ് വരുന്നത് നല്ല ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കീം തന്നെയാണ് അവർ കൊണ്ടു വന്നിട്ടുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത്രയും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങളാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടി ആണല്ലോ അവരെല്ലാവരും പഠിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു അവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മൊത്തം ടോട്ടലി എല്ലാവർക്കും വേണ്ടി കൊണ്ടു വന്നതു തന്നെയാണ് ഈ വിദ്യാഭ്യാസ ലോൺ എന്ന് പറയുന്നത്